ആ സ്കൂളില് കോളേജില് എന്നൊക്കെ പറയുമ്പോൾ സ്കൂളില് എല്ലാ കൊല്ലവും നമ്മളീ സയൻസ് പ്രൊജക്റ്റ് ഉണ്ടാകാറുണ്ട് അപ്പം അതില് നമ്മുടെ ഞാന് മിക്കവാറും എല്ലാ പ്രാവശ്യവും ഞാൻ പങ്കെടുക്കാറുണ്ട് ഞാന് ഒന്ന് രണ്ട് പ്രാവശ്യം ആദ്യം ഞാൻ തോന്നുന്നു എട്ടാം ക്ലാസ്സിലാന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒര് സോളാർ സോളാർ വാട്ടർ ഹീറ്ററാണ് ഉണ്ടാക്കിയത് അതൊരു ചെറിയ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായുന്നത് പിന്നെ പിന്നൊമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു ചെറിയ വോൾക്കാനോൻ്റെ ഒരു ഇതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്തില് പിന്നെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല പിന്നെ പ്ലസ് പിന്നെ ഞാന് ആ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മംഗൾയാൻ്റെരു ചെറിയൊരു മോഡല് അതിൻ്റെ എങ്ങനാണ് സ്പേസ് ക്രാഫ്റ്റില് പോയതും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെറിയൊരു ഡെമോ പോലെ ഒരു ഇതാണ് ഞാനതില് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം നന്നായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മിനി മോഡല് എങ്ങനെയാണോ അത് മംഗൾയാൻ ഇവിടുന്ന് പോയ വിക്ഷേപിച്ച സമയം മുതല് അതിൻ്റെരു മൊത്തം ഉള്ളൊരു ഡെമോ പോലെയാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായുന്നത് ഒരു ഓർബിറ്റില് ചെയ് അതിൻ്റെ എത്തുന്ന ഒരു സമയം ഒരു ഒരു ട്ടാ ഓ ഓർബിറ്റ് ഓർബിറ്റായിട്ട് മാറ്റുന്ന ആ ഒരു രി കു ഉയർത്തി കൊണ്ട് പോകലും ഇത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തുക അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ലാൻഡിംഗ് കാര്യങ്ങളും എല്ലാം ഒക്കെയായിരുന്നു ഞാനതില് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞു